ഇൻറ്റർനെറ്റ് വരുന്നതിന് മുമ്പ് ഞാനാദ്യൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നത് ടി വി തന്നെയായിരുന്നു ടി വി വഴിയുള്ള ന്യൂസ് ചാനൽ വഴിയാണ് ഞാൻ കൂടുതലും ലോകത്തെ കുറിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും മനസിലാക്കാറുണ്ട് എന്തിരുന്നാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ പതിയെ ന്യൂസ് നിർത്തുകയും ന്യൂസ് കാണൽ നിർത്തുകയും ഞാനീ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയും ചെയ്തു ഞാൻ ദിവസവും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ആണ് ഫേസ്ബുക്ക് ഞാനുപയോഗിച്ചുകൊണ്ടിരുന്നെയാരുന്നു പക്ഷെയൊരു രണ്ടായിരത്തി പതിനേഴി തന്നെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഉപയോഗം നിർത്തിയിരുന്നു ഏറ്റോം കൂടുതൽ പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റെഗ്രാമായിരുന്നു അത് വളരെ നല്ലൊരു ഇൻസ്റ്റെഗ്രാം ഒരു പ്ലാറ്റ്ഫോമാണ് പുതിയെ കൂടെ കുറെ ആൾക്കാരെ മനസിലാക്കാനും അറിയാനും നമ്മുടെ നാട്ടിൽ മാത്രം അല്ല ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള ഏത് കൺട്രീലുള്ള ആളേം നമുക്ക് ഞൊടിയെഴയിൽ സംസാരിക്കുവാനും പരിചയപ്പെടുവാനും അവരെക്കുറിച്ച് അറിയാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമ് കൂടിയാണ് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വാട്സപ്പിൽ ഞാൻ ഏറ്റോം കൂടുതലാൾക്കാർ സംസാരിക്കാറുള്ളത് എനിക്ക് റിലേറ്റീവ്സോ ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് ആൻ ഫാമിലീസ് ആൻ റിലേറ്റീവ്സിനോടാണ് ഞാനേറ്റോം കൂടുതൽ സംസാരിക്കാറുള്ളതും പക്ഷേ എന്തിരുന്നാലും ഇൻസ്റ്റഗ്രാം വഴി ഞാൻ കൊറേം ന്യൂസ് കളക്ട് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ അടുത്തടുത്തായി നടന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ് അല്ലെങ്കിൽ സ്റ്റോറീസ് എന്തേലൂടെ മനസിലാക്കാൻ പറ്റും അതുമാത്രമല്ല ലോകവീക്ഷണം മാത്രമല്ല എന്തിരുന്നാൽ പുതിയ ജോലി ഒഴിവുകൾ പുതിയ എന്തേങ്കിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ അതും മാത്രമല്ല ദേ പുതിയ എന്തെങ്കിലും സാധനം നമുക്ക് ആമസോൺ ഫ്ളിപ്കാർട്ട് അല്ലാതെ പല പല പേജിലൂടെ ഓഡർ ചെയ്യാനും ഇൻസ്റ്റഗ്രാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാനേറ്റോം കൂടുതൽ ഇൻസ്റ്റഗ്രാം റീൽസ് കാണാറുള്ളത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള റീൽസും സ്റ്റോറീസും ഫീഡ്ബാക്സും ഒക്കെയാണ് അത് എന്നെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് കാരണം ന്യൂസൊക്കെ ആണെൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയിരുന്ന് അതു തന്നെ കണ്ടുകൊണ്ടിരിക്കണം പക്ഷേ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് ഞാൻ ഏത് സമയത്തും എവിടെയിരുന്നാലും എനിക്കെന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും അതന്നെ പണ്ടത്തെക്കാലും കൂടുതൽ ഇപ്പോൾ കൂടുതൽ ലോക പരിചയം എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട് എടുത്ത് പറയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ട്രാഫിക് റൂൾസ് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ട ആളെ പോലും നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ്സ് വഴി നമുക്ക് കണ്ടെത്താവുന്നതാണ് അതൊക്കെ വളരെ ഈസിയായിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ഞാൻ പറയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറിച്ച് പറയാണേൽ തന്നെ നമ്മുടെ നാടിലുണ്ടായ പുരോഗതികൾ ന്യൂസ് ചാനെൽസ് അറിയുന്നതിന് മുൻപ് നമ്മുടെ ഇൻസ്റ്റഗ്രാം കണ്ണുകൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന പലതും നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പകർത്തുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്കോ മറ്റ് ആൾക്കരിലേക്കോ പകർത്താൻ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് എന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സഹായിച്ചിട്ടുള്ളത് അതു മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പുറത്ത് അമേരിക്ക കാനഡ ജർമ്മനി അങ്ങനെ പല സ്ഥലത്തിലുള്ള കാര്യങ്ങളും പല തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് പരിചയപ്പെടാനും സാധിക്കും ഇതൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ഉണ്ടായേക്കാവുന്ന സഹായങ്ങൾ